ഹേ ഹല്ലോ അതേ പറഞ്ഞോളൂ ആ ഓക്കേ ഓക്കേ ഏ എന്താ പണി എടുത്ത് കൊണ്ടിരുന്നപ്പോഴാണോ പണി എടുത്ത് കൊണ്ടിരുന്നപ്പോഴാണോ ആ ഓക്കേ പെട്ടെന്നായതാണ് ആ ഓക്കേ ആ ഓക്കേ ആ ഇതിന് മുൻപ് എവിടേലും കാണിച്ചിട്ട് എന്തേലും ഉണ്ടായിരുന്നോ കാണിച്ചിട്ടില്ല ആ ഓക്കേ ആ അപ്പോൾ വേറെ ഈ നടുവേദന മാത്രമല്ലേ പുള്ളിക്ക് പ്രശ്നമുള്ളൂ വേറെ ഇങ്ങനെ എന്തേലും ബുദ്ധിമുട്ടോ കാര്യങ്ങളെന്തേലും ഉള്ളതാണോ ആ ഓക്കേ പറ്റുന്നില്ലല്ലേ ആ നിങ്ങൾ കോഴിക്കോട് എവിടെയാണെന്നാണ് പറഞ്ഞത് ആ ഓക്കേ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഹോസ്പിറ്റല് വരെ ഒന്ന് വന്നിട്ട് ഒന്ന് എം ആർ ഐ എടുക്കണം എം ആർ ഐ എടുത്ത് നോക്കീട്ടേ നമുക്ക് എന്തെങ്കിലും ഏ പറയ്യാൻ പറ്റുള്ളൂ ആ അപ്പോൾ നമ്മൾ എം ആർ ഐ എടുത്തിട്ട് സ്കാനിംഗ് റിപ്പോർട്ട് ഒന്ന് നോക്കീട്ട് എന്താ പ്രശ്നം നോക്കീട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എ എപ്പോഴാണ് ഫ്രീ ആവുക ഞാൻ ഏ ഞാൻ മിക്ക ദിവസവും ഉണ്ടാവും അ അപ്പം നിങ്ങൾ എന്നാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി ആ ഓക്കേ എന്നാൽ വെള്ളിയാഴ്ച്ച വന്നോളൂ നിങ്ങൾ എന്തായാലും സ്കാന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏ സ്കാനിങ്ങിൻറ്റെ റിപ്പോർട്ടുമായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വന്നാൽ മതി അപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം ഒന്ന് നേരത്തെ വിളിച്ച് പറയാണേ നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിടാം അപ്പോൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കി ട്രീട്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ബാക്കി നോക്കാം ആ ഓക്കേ എന്നാൽ എന്നാൽ നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി കേട്ടോ ഓക്കേ